ഞങ്ങളുടെ പ്രദേശത്ത് വെറ്റിനറി ഡോക്ടർ ഉണ്ട് ഇവർ നമ്മൾ ഒരു മൃഗത്തെ കൊണ്ടുപോയാൽ അതിൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ഉദാഹരണമായിട്ട് ഞാനെൻ്റെ പട്ടിക്കുഞ്ഞിനെ കൊണ്ടുപോയി പട്ടിക്കുഞ്ഞിനു കൃത്യമായിട്ടുള്ള വാക്സിനേഷനും അതുപോലെത്തന്നെ വിര കൊടുക്കുവാനും മറ്റു ചില ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനും ഈ ഡോക്ടർമാരുടെ കഴിവ് വലുത് തന്നെയാണ് മറ്റു ഹോസ്പിറ്റലുകളെ അപേക്ഷിച്ച് പ്രാദേശിക മേഖലയിലെ ഗവണ്മെൻറ്റ് വെറ്റിനറി ഹോസ്പിറ്റലുകളിലെ ഡോക്ടർമാർക്ക് അവരുടെ കഴിവ് വളരെ വലുതാണ് പണ്ടുകാലങ്ങളെ അപേക്ഷിച്ചു ഇന്ന് മൃഗത്തിനെ പരിപാലിക്കുന്ന ചിലവ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ആ കുറയുന്നതിൽ നിർണ്ണായകമായിട്ടുള്ള പങ്കുവഹിക്കുന്നത് ഈ ഡോക്ടർമാർ തന്നെയാണ് കഴിഞ്ഞമാസം മൃഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിരയിളക്കലിൽ നിന്നും അതുപോലെത്തന്നെ വാക്സിനേഷനും വേണ്ടി നൂറ്റിയമ്പത് രൂപ മാത്രമേ ചിലവായിട്ടുള്ളു വാക്സിനേഷൻ്റെ ചിലവ് ഗവണ്മെന്റ് ഏറ്റെടുത്തതുകൊണ്ട് ആ ചിലവ് നമുക്ക് ലാഭിക്കാൻ പറ്റി